എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മി ടീച്ചർ എന്ന് പറയുന്നത് ലാലി മിസ്സാണ് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് എടുത്ത ഇംഗ്ലീഷ് വിഷയം എടുത്ത മിസ്സ് ആണ് ലാലി മിസ്സ് അപ്പം മാം മിസ്സിനെ മിസ്സിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ടീച്ചറെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ടീച്ചർ ഒരുപാട് രീതിയിൽ എൻ്റെ സ്വഭാവത്തിനെയും എൻ്റെ പഠിപ്പിനെയും ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ട് ആളെന്ന് പറയുന്നത് ഭയങ്കരം എന്താ പറയുക കുട്ടികളോട് നല്ലൊരു നല്ല രീതിയിലാണ് സംസാരിക്കാറ് എന്തിനും കൂടെ നിൽക്കുന്ന ഒരു ടീച്ചറായിരുന്നു പഠിപ്പിക്കാനായാലും ആ കുട്ടികൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിലും അത് പുറത്തെടുക്കാൻ ആയാലും ടീച്ചർ ഒരുപാട് രീതിയിൽ സഹായിച്ചിട്ടുണ്ട് ഒരാളെ മാത്രം ഇഷ്ടപ്പെടുക എന്നതല്ല നേരെ മറിച്ചിട്ട് എല്ലാ കുട്ടിക്കളോടും ഒരേ രീതിയിൽ ഒരുപോലെ തന്നെ സംസാരിക്കാനും അല്ലെങ്കിൽ ഒരേ രീതിയിൽ തന്നെ നല്ല രീതിയിൽ പഠിപ്പിക്കാനും ആ ടീച്ചർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ആ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് ആ ടീച്ചറെ തന്നെയാണ് ആ ടീച്ചർ തന്നെയാണ് എൻ്റെ ജീവിതത്തിന് ഇത് എൻ്റെ ഒരു ഇപ്പം ടീച് ടീച്ചർ എന്നുള്ള നിലയിൽ ഞാൻ ഇപ്പോൾ ഒരു ടീച്ചിംഗ് ഇതിലാണ് പഠിക്കുന്നത് അപ്പം അതിന് എന്നെ ഒരുപാട് സ്വാധീനിച്ചത് മിസ്സ് ടീച്ചറെ ആ ആയൊരു സ്വഭാവം തന്നെയാണ് കുട്ടികളോട് എങ്ങനെ പെരുമാറണം അല്ല എങ്ങനെ ക്ലാസ് എടുക്കണം എങ്ങനെയാണ് ഒരു ഒരു കുട്ടിയെ മാത്രമല്ല എല്ലാ കുട്ടിയെയും ഒരേ കണ്ണോടെ കണ്ടിട്ട് എങ്ങനെ പഠിപ്പിക്കണം എല്ലാം ടീച്ചർ ഒരു ഇതിൽ നിന്നാണ് ഞാൻ പഠിച്ചത് ടീച്ചറെ പോല ടീച്ചറെ പോലെയെന്നല്ല ടീച്ചറെക്കാളും നന്നായിട്ട് ഇനി എനിക്ക് കിട്ടുന്ന കുട്ടികളെ പഠിപ്പിക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം ഞാൻ അതിന് വേണ്ടി തന്നെയാണ് ശ്രമിക്കുന്നതും ടീച്ചർ അത്ര എൻ്റെ മനസ്സിനെ സ്വാധീനിച്ചൊരു ടീച്ചർ വേറെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ആ അപ്പം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു മിസ്സിനെ ഇനി ഒരു ജീവിതത്തിൽ എപ്പോഴെങ്കിലും കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഇത്രയും ഇത്രയും നാളത്തെ പഠിപ്പിന് ഞാൻ ഏറ്റവും കൂടുതൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് എൻ്റെ ലാലി ലാലി ടീച്ചറെയാണ് ഇംഗ്ലീഷ് എന്ന ആ ഒരു വിഷയത്തെ ഞാൻ ഇഷ്ടപ്പെടാൻ പോലും കാരണം മിസ്സ് തന്നെയാണ് അപ്പം ലൈഫിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കാണാൻ ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു